ഹലോ ആ എടാ നിൻ്റെ വീടിൻ്റെ അടുത്ത് ട്രഡീഷണൽ ഹൗസ് അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ റിസോർട്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഓൾഡ് ടൈപ്പ് ഉണ്ടല്ലേ നമ്മൾ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ വരുന്നുണ്ട് അപ്പോൾ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അവർ ഈ വലിയ വലിയ എറണാകുളം പോലത്തെ സിറ്റികളിലൊക്കെ താമസിക്കുന്നവരാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓൾഡ് ടൈപ്പ് ആവുമ്പോൾ അവർക്ക് ഒരിതാവുമല്ലോ എന്നുവെച്ചാൽ അവർ അങ്ങനെ അധികമൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇല്ല നമുക്ക് റെൻറ്റും കാര്യങ്ങളുമൊന്നും പ്രശ്നമില്ല എത്ര രൂ പേയ്മെൻറ്റ് എത്രയായാലും നമുക്ക് സീൻ ഇല്ല പക്ഷേ എന്താണ് പറയുക കാണുമ്പോൾ അവിടുത്തെ വ്യൂ കാര്യങ്ങളും എല്ലാ സാധനങ്ങളും അവിടുത്തെ റൂംസും എല്ലാം അടിപൊളിയായിരിക്കണം മ് ഉള്ളത് മതി ആ ആ ട്രീ ഹട്ട് ഹൗസ് ഹട്ട് ഒക്കെയാണെങ്കിൽ സെറ്റ് മറ്റേ ട്രീ ഹൗസ് ഒക്കെ ഉണ്ടോ

ഇല്ലില്ല നമുക്ക് വയനാട്ടിലെ ഓൾമോസ്റ്റ് എവിടെയായാലും പ്രശ്നമില്ല പക്ഷേ സാധനം അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ളത് തന്നെ വേണം നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ മറ്റേ ട്രീ ഹട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുമോ എന്ന്

ആ അങ്ങനെ വിഷയമുള്ളപ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുക്കരുതല്ലോ പിന്നെ റൂംസ് ഇപ്പോൾ ഓൾഡ് ആണെങ്കിലും അത്യാവശ്യം ഇത് സെക്യൂരിറ്റി ഒക്കെ ഉള്ളതായിരിക്കുമല്ലോ അത് കടുവ മരത്തിലും കയറും എന്നാലും കുഴപ്പമില്ല ആ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം

ആ ആ ആ ഓക്കെ എന്നാൽ നീ അത് നോക്കിയിട്ട് പറ ഓക്കെ ഓക്കെ അതെന്നാൽ നമുക്ക് അങ്ങനത്തെ അറേഞ്ച് ചെയ്താൽ മതി ആ ഒക്കെ ഞാൻ എന്നാൽ അങ്ങോട്ട് വരാം ആ എടാ ഓക്കെ